ഹലോ അക്ഷയ സെന്ററല്ലേ ആ എനിക്കുള്ള പാന് കാര്ഡ് നഷ്ടപ്പെട്ടുപോയി അപ്പോള് അതിന് പകരമായിട്ട് എനിക്കൊരു റീപ്രിന്റ് അത്യാവശ്യമായിട്ട് വേണം കാരണം എനിക്ക് അതിന്റെ ഉപയോഗം അത്യാവശ്യമായിട്ടും ഉണ്ട് ഇന്ന് തന്നെ അതത്യാവശ്യമായിട്ടും വേണം എന്റെ നഷ്ടപ്പെട്ട പോയ് നമ്പര് എ എന് വണ് റ്റു ത്രീ ഫോര് സിക്സ് സെവെനേയ്റ്റ് വണ് സീറോ ഇതിന്റെ അതിന്റെ ഫോണ് നമ്പര് റ്റു ട്രിപ്പിള് നയന് റ്റു സിക്സ് ഏയ്റ്റ് വണ് ഇതിന് അതുപോലെ ഇതിന് വേണ്ടിയിട്ട് ഏത്ര സമയം എടുക്കുവെന്നൊന്ന് പറയാവോ കാരണം എനിക്ക് വളരെ അര്ജന്റ്റായിട്ട് വേണ്ടതാണ് മിന് ടൈമെത്ര എടുക്കുവെന്നൊന്ന് പറഞ്ഞെങ്കില് അതനുസരിച്ച് അതുപോലെ എപ്പോഴാണ് ഞാനിവിടെ ഫോണ് വിളിക്കുന്നത് കൊണ്ട് എപ്പോഴാണു വരണ്ടിയെ അവിടെ തിരക്കില്ലെങ്കില് എനിക്കാവശ്യമാണെങ്കിലും എനിക്ക് പെട്ടെന്ന് നടത്തി തരുമെന്നുണ്ടെങ്കില് ഇപ്പോള് തന്നെ വരാമായിരുന്നു അതിന് എന്തൊക്കെ രേഖകളാണിനി കൊണ്ടുവരേണ്ടത് എന്റെ കയ്യിലാ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടായിരുന്നു ആ കോപ്പിന്നാ നമ്പര് തന്നത് പിന്നെ വേറെ എന്റെ കയ്യിലില്ല അപ്പോള് എന്തെക്കെയാണ് കൊണ്ടു വരണ്ടെ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കില് ഒന്ന് പറയണം എപ്പോഴാണു വരണ്ടിയെ എപ്പോള് എനിക്ക് ഇത് തിരിച്ച് കിട്ടും എത്ര പെട്ടെന്ന് വേണം അപ്പോള് എപ്പോഴാണ് തിരിച്ച് കിട്ടുന്നെന്നൊക്കെയുള്ള വിശദാംശങ്ങളൊന്നു പറയാമോ